ഹലോ ആരാണ് ആരാണ് ഇവിടെ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നു പറയാനായിട്ട് നമ്മുടെ നെയ്യാറിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രമുണ്ട് അപ്പോൾ അവിടെ പോയാൽ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും ഒരു ലൈൻ സഫാരി പാർക്കുണ്ട് പിന്നേ ആന വളർത്തൽ കേന്ദ്രമുണ്ട് അവിടെയൊക്കെ പോയാലെന്താ നമുക്ക് നിങ്ങളുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് എന്നാൽ വളരെ നല്ല രസമാണ് വൈൽഡിൽ പിന്നെ ഇവിടെ ഒരു ആ ആ പിന്നെ നദിയിലൂടെ ബോട്ടിംഗ് ഞാൻ ചെയ്ത് അതുവഴി നമുക്ക് കാണാൻ പറ്റും അത് കോട്ടൂർ എന്ന സ്ഥലത്തുണ്ട് അവിടെ പോയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരേരിയ തന്നെയാണത് അതപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും ഏഹ് ആ ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റും ആ പോകാൻപറ്റും പോകാൻപറ്റും

ആ ഗൈഡുണ്ട് ഗൈഡുണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഏയ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരവിടെ ഉണ്ട് അതിന് ലൈഫ് ഗാഡൊക്കെ ഉണ്ട് അവർ കൊണ്ടുപോയി ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചോളും ആ സാരമില്ല അവിടെ ലൈഫ് ഗാഡൊക്കെ ഉണ്ട് അപ്പം അവർ നമുക്കെന്തെങ്കിലും വന്നുപോയാലും അവർ എല്ലാം പറഞ്ഞു തന്നോളും ഹാ ഇവിടെയുള്ളത് മാൻ സിംഹം ആന പിന്നെ ചീങ്കണ്ണി ഇതൊക്കെയുണ്ട് അത്യാവശ്യം ഒക്കെ കാണാം കാട്ടുപോത്ത് ഏയ് ആക്രമിക്കാൻ സാധ്യതയില്ല ഏയ് അങ്ങനെ അതൊന്നും വലിയ കുഴപ്പമില്ല അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും നിന്നാൽ മതി ആ ഗൈഡുണ്ട് ഗൈഡുണ്ട്